ഞങ്ങളുടെ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ലബ്ബുണ്ട് ആര്ട്സ് ആന്ഡ് സ്പോര്ട്സ് ക്ലബ്ബുണ്ട് അവിടെ അങ്ങനെ ഓണപരിപാടിക്ക് ഒക്കെ പരിപാടി നടത്താറുണ്ട് പിന്നെ ഓണപരിപാടിക്ക് അതേമാതിരി അവിടെ നാട്ടിലുള്ള എല്ലാവരും ചെറിയ കുട്ടികള് തൊട്ടിട്ട് വലിയ ആള്ക്കാർ വരെ അവിടെ പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഓണപ്പരിപാടി എന്ന് പറയുമ്പോള് അറിയാമല്ലോ ലെമണ് സ്പൂണ് അങ്ങനത്തെ സുന്ദരിക്ക് പൊട്ടു തൊടീല് ചാക്കില് ചാട്ടം അങ്ങനത്തെ പരിപാടിയാണ് നടത്താറ് പിന്നെ അതല്ലാണ്ട് എന്താ പറയുക വേറെ വേറൊരു റോട്ടറി ക്ലബ്ബുണ്ട് അവിടെ ഇതേമാതിരി സ്പോര്ട്സ്പരമായിട്ട് പറഞ്ഞാൽ ഗെയിംസ് അതായത് ബാഡ്മിന്റണ് കളിക്കാന് പോകാറുണ്ട് ആള്ക്കാർ അപ്പോൾ അങ്ങനെ അതിനോടൊക്കെ ഇഷ്ടമുള്ള ആള്ക്കാര്ക്ക് അവിടെ പോയി കളിക്കാം പിന്നെ അവിടെ ഒരു ലൈബ്രറി ഉണ്ട് പുസ്തകത്തോട് ഒക്കെ ഇഷ്ടമുള്ള ആള്ക്കാര്ക്ക് വരയ്ക്കാനും എഴുതാനൊക്കെ ഇഷ്ടമുള്ള ആള്ക്കാര്ക്ക് അവിടെ പോയി അവരൊക്കെ അവിടെ പോയിട്ട് വായിക്കാറൊക്കെ ഉണ്ട് പിന്നെ പിന്നെ എന്തെന്ന് വച്ചാൽ ഇതൊക്കെ തന്നെയാണ് മെയിന് ആയിട്ട് നടത്താറുള്ളത് പ്രദേശത്ത് ഞങ്ങളുടെ അവിടെ പ്രദേശത്ത് ഇങ്ങനത്തെ സംഭവങ്ങള് ഒക്കെ തന്നെയാണ് നടത്താറ് പിന്നെ അതേപോലെ കലോത്സവം പോലെ നടത്താറുണ്ട് പ്രദേശത്തെ ആളുകൾ മാത്രമായിട്ട് അങ്ങനെ അപ്പോഴും പരിപാടികളിലൊക്കെ ആള്ക്കാൾ പങ്കെടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഈ പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ പ്രായമില്ലാത്തോരു മാത്രമല്ല പ്രായമുള്ളവരും അധികം പങ്കെടുക്കാറുണ്ട് ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വയസായ ആള്ക്കാർ വരെ പങ്കെടുക്കാറുണ്ട് അങ്ങനൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നല്ല ഉഷാറോടെ പങ്കെടുക്കാറുണ്ട് പിന്നെ ആരും മടിച്ചു നില്ക്കാറൊന്നും ഇല്ല ഇപ്പോൾ കൊച്ചു കുട്ടി മുതൽ വയസായ മുത്തശ്ശിമാരാണെങ്കിലും മുത്തശ്ശന്മാരാണെങ്കിലും അവര്ക്ക് പറ്റണപോലൊക്കെ ചെയ്യാറുണ്ട് ഓണ പരിപാടിക്ക് ആണെങ്കിലും എന്തിനാണെങ്കിലും എല്ലാവരും നല്ല ഉഷാറായിട്ട് പരിപാടികളിൽ ഒക്കെ പങ്കെടുക്കും